ഹലോ ഇത് പേരമോൻ റസ്റ്റോറന്റിലെ നമ്പറല്ലേ ആ ഞാൻ ഇവിടുന്ന് പൂക്കോട്ടെന്നാണ് വിളിക്കുന്നത് നമ്മൾ അവിടെ ഇന്ന് ഒരു അൽഫാം മന്തി ഓർഡർ കൊടുത്തായിരുന്നു അപ്പോൾ എന്താന്നുവെച്ചാൽ ഇതുവരെ എത്തിയിട്ടില്ല ആള് പത്ത് മണിയാകുമ്പളേക്കും എത്തുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും ഫാമിലി മൊത്തം വെയിറ്റ്ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മള് രാവിലെ ഓർഡർ ചെയ്തപ്പോൾ അവിടേക്ക് വിളിച്ചപ്പോൾ അവിടുന്ന് നമ്പര് കിട്ടിയിരുന്നു ഡെലിവറി ബോയിന്റെ അതിലേക്ക് വിളിച്ചപ്പോൾ ഒരുപാട് തവണയായി വിളിക്കുന്നു എടുക്കണില്ല അറ്റ്ലീസ്റ്റ് ഒന്ന് തിരിച്ചു വിളിക്കുകയെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിവരമെങ്കിലും അറിയാമായിരുന്നു ആളു വരുമോ ഇല്ലയോ ഡെലിവറി ചെയ്യൂലെ അറിയാണ്ട് നമുക് വേറെ ഓർഡർ കൊടുക്കാനും പറ്റില്ലല്ലോ ഇപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അ ഞാൻ ഒരുപാട് തവണ വിളിച്ചു കോൾ എടുക്കുന്നില്ല എന്താ വിവരം ഒന്നും അറിയുന്നില്ല ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ കയ്യിൽ വേറെ നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് എന്നെ വിളിക്കാൻ പറ്റുമെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഇനി വരുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചതാണോ അതോ എനി ആക്സിഡന്റ്സ് എന്തെങ്കിലും ഉണ്ടാവുമോന്നൊന്നും അറിയില്ലല്ലോ നിങ്ങളുടെ കയ്യിൽ വേറെ നമ്പർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് നമ്മളെ ഒന്ന് വിവരം അറിയിക്കാൻ പറ്റി കഴിഞ്ഞാൽ കാര്യായിരുന്നു കാരണം നമ്മൾ ഒൻപതു മണിക്ക് വിളിച്ച് ഓർഡർ കൊടുത്തതാണ് ഒമ്പതര ഒൻപതെ മുക്കാൽ ആകുമ്പോൾ എത്താം എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ തന്നെ പത്തു മണി കഴിഞ്ഞു നമുക്ക് അങ്ങോട്ട് വരാൻ ഇനി ടൈമും ഇല്ല അങ്ങോട്ട് ഒരുപാട് ദൂരം ഉള്ളതുകൊണ്ട് ഇപ്പം ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്താൻ ഇത്തിരി ബുദ്ധിമുട്ടാവും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും വിവരം തരാമോ ഒന്നുമില്ലെങ്കിൽ വെയിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഓർഡർ കൊടുക്കണോ ഇല്ലേയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഓക്കേ താങ്ക്യൂ